കേരളം സന്ദർശിക്കുമ്പോൾ നമ്മള് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വിനോദങ്ങളില് ഏർപ്പെടാൻ വേണ്ടിയിട്ട് നമ്മള് പരമാവധി ശ്രമിക്കുക തന്നെ ചെയ്യണം ഇപ്പം നമ്മളൊരു നമ്മുടെ കേരളം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൂടുതലും കാടുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പം നമ്മള് കാട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മള് വെറുതെ വണ്ടിയിലിരുന്ന് അങ്ങ് പോകുന്നതിലും നല്ലത് അവരുടെ വണ്ടീല് കൊണ്ടോവുന്ന പാകത്തിന് പോവാണെങ്കിൽ നമ്മൾ അവര് അവരുടെ ഒരു ഇതില് അവരുടെ ഒരു ഗൈഡിങ്ങില് പൂവാണെങ്കിൽ അവർക്കറിയാം മൃഗങ്ങള് എവിടേക്കെയാണുള്ളത് എങ്ങനേക്കെയാണുള്ളത് എന്നൊക്കെ അവർക്കറിയാം അപ്പം അവരതിന് പറഞ്ഞ് തരും അപ്പം അതിനനുസരിച്ച് നമ്മള് നിൽക്കുവാണെങ്കിൽ നമ്മക്കതല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ പ്രകൃതിയെ നമ്മള് കൂടുതലായിട്ട് ആസ്വദിക്കണങ്കില് നമ്മള് സൈക്ലിംഗ് യാത്രയോ അങ്ങനെ എന്തെങ്കിലും തിരെഞ്ഞെടുക്കുന്നതാണ് കൊറച്ചും കൂടി ബെറ്ററായിട്ടുള്ളത് കാറിലൊക്കെ നമ്മൾ കാറില് ബൈക്കിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മള് വിട്ടടിച്ച് ബൈക്കിൻ്റെ ആക്സിലേറ്ററ് കൂട്ടിയിട്ട് എവിടെയും നോക്കാണ്ട് സ്ട്രൈറ്റ് റോഡ് നോക്കി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിലും നല്ലത് നമ്മള് സൈക്ലിംഗ് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുക അതാണെങ്കിൽ നമ്മൾ കേറ്റമൊക്കെ എത്തുമ്പോൾ മെല്ലെ തള്ളി ഓരോ കാര്യങ്ങളും നോക്കി ഓരോ വീടുകളുടേയും അവസ്ഥകള് റോഡ് സൈഡുകള് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മള് കൂടുതലായിട്ടും പോകുന്നത് ഇപ്പം കൂടുതലായിട്ടും സൈക്ലിങിലൂടെയുള്ള യാത്ര കൊണ്ട് വരാൻ വേണ്ടീട്ട് നമ്മള് ശ്രമിക്കുക അതുമല്ലെങ്കിൽ നമുക്ക് നടത്തത്തിലൂടെ നമുക്ക് കേരളം മൊത്തം നമക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നെയാണ് അപ്പം നമക്ക് പ്രകൃതി സൗന്ദര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടിയാണ് നടത്തിലൂടെയും ഓട്ടത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത്